ആരാധനയ്ക്ക് അനുചരിക്കുന്ന പ്രത്യേക സാംസ്കാരിക അനുഷ്ഠാനങ്ങളെന്നു വച്ചാൽ ഞാനൊരു ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പുതിയൊരു വീടെടുത്ത് മാറുമ്പോൾ അവിടെ മൗലീദ് പാരായണം ചെയ്യുക അതുപോലെ നമ്മുടെ മുസാഫൂതുക അതുപോലുള്ള പ്രത്യേക അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ മതത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ സാംസ്ക്കാരിക അനുഷ്ഠാനമെന്നു വച്ചാൽ അതുപോലെ ഇപ്പോൾ ഒരു കല്ല്യാണ വേദിയിൽത്തന്നെയാണെങ്കിലും കല്ല്യാണത്തിന് പിന്നെ ചെക്കൻ്റെ കൈയ്യിൽ പെണ്ണിനെ ഏല്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ ഒരു ഒരു സലാത്തോ അല്ലെങ്കിൽ മുസാഫിലെ ഏതെങ്കിലും ഒരു ആയത്ത് ചൊല്ലാറുണ്ട്